മൃഗങ്ങളിൽനിന്ന് സാധാരണ നമ്മൾ വിളകളെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൾ നമ്മൾ വേലി കെട്ടിയിട്ടാണ് പൊതുവെ ആളുകൾ എന്താക്കുക ഈ വിളകളെ സംരക്ഷിക്കുക അതുപോലെ സാധാരണ രൂപത്തിൽ പന്നികൾ പിന്നെ ആനകൾ ഒക്കെ മുതലായ മൃഗങ്ങളാണ് സാധാരണ വിളകൾ നശിപ്പിക്കാറ് അതിൽ ഇന്ന് കണ്ടുവരുന്ന ഒരു രൂപം ഉണ്ട് ഈ ഇലക്ട്രിക് കമ്പികളിൽ കരണ്ട് പ്രൊവൈഡ് ചെയ്ത് മൃഗങ്ങളെ അത് അവരെ ദിശ മാറ്റുക മാത്രമല്ല അവരുടെ മരണത്തിന് തന്നെ കാരണം ആയേക്കുന്ന രൂപത്തിലുള്ള ഒരു തരം മൃഗങ്ങളിൽനിന്ന് വിളകളെ സംരക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു രീതി അത് പൂർണ്ണമായിട്ടും അംഗീകരിക്കാൻ പറ്റില്ലെങ്കിലും അത് ഈ ഒരു കർഷകനെ സംബന്ധിച്ചടത്തോളം അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻറ് ആയ ഒരു കാര്യമാണ് ഈ കൃഷി ചെയ്ത് കിട്ടുന്ന വിളകൾ എന്ന് പറയുന്നത് കാരണം ആൾ ചല കർഷകന്മാർ സ്വാഭാവികമായിട്ടും കൃഷി ചെയ്യാൻ വേണ്ടി ലോണെടുത്തും അങ്ങനെയൊക്കെ കൃഷി ചെയ്യുന്നത് ഈ മൃഗങ്ങൾ നശിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി കൃത്യമായിട്ടത് പരിപാലിക്കാൻ വേണ്ടി അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും എന്നിരുന്നാലും അത് ഒരു ഹ്യൂമൻ റൈറ്റ്സ് അല്ലെങ്കിൽ ഒരു മൃഗങ്ങളുടെ ഹ്യൂമാനിറ്റി എന്നുള്ള ഒരു കൺസേണിൽ നോക്കുമ്പോൾ നമുക്ക് എന്താക്കാം അതിനെ അംഗീകരിക്കാൻ പറ്റില്ല പക്ഷെ എല്ലാ തരത്തിലും നോക്കുകയാണെങ്കിലും അത് എന്താണ് ഒരു മനുഷ്യന്മാർ അവരുടെ ജീവിത ജീവിക്കാൻ വേണ്ടി അവർ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന വിളകൾ നശിപ്പിക്കുന്ന മൃഗങ്ങളെ സ്വാഭാവികമായിട്ടും തടയാൻ അവരൊരു ഒരു വഴി എങ്ങനെ ആയാലും അവർ കാണും അതിൽ പെട്ട ഒന്നാണ് ഈ കമ്പിവേലികൾ കെട്ടി മൃഗങ്ങളെ തൻ്റെ കൃഷിയിടങ്ങളിൽ നിന്നും സംരക്ഷിക്കുക എന്നുള്ളത് പിന്നെ പഴയ കാലങ്ങളിലൊക്കെ ഒരു ആ ഒരു മനുഷ്യനെ കാവൽ നിർത്തുന്ന ഒരു ശീലം ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പം അത് അത്ര പോപ്പുലറല്ല പിന്നെ മതിലുകൾ കെട്ടിയും വേലികളൊക്കെ കെട്ടി മൃഗങ്ങളെ തൻ്റെ കൃഷിയിടങ്ങളിൽനിന്ന് സംരക്ഷിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് എന്നാലും ആന പോലുള്ള വലിയ വലിയ ജീവികളാകുമ്പോൾ അതിന് ഒരു ചെറിയ കമ്പിവേലിയോ അല്ലെങ്കിൽ ഒരു ചെറിയ മതിൽകെട്ടുകളൊന്നും അതിന് ഭേദിക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ട് ഉണ്ടാവില്ല സ്വാഭാവികമായിട്ടും ചില ആളുകൾ ആന ഇറങ്ങാതിരിക്കാൻ വേണ്ടി ഈ ഇലക്ട്രിക് കരണ്ട് വൈദ്യുതി ഉള്ള പോസ്റ്റ് ലൈനുകളൊക്കെ ഉപയോഗിച്ച് അതിനെ തടയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അതിൽ തന്നെ ഒരുപാട് എന്താ പറയുക ഒരുപാട് പ്രശ്നങ്ങൾ അതിൽ ആനകൾക്ക് നേരിടുന്നുണ്ട് അതുപോലെ പന്നികളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഭക്ഷണത്തിൽ ഒരു പടക്കം വെച്ചിരുന്ന ഒരു സംഭവം കേരളത്തിൽ നടന്നൊരു സംഭവമാണ് അതൊക്കെ വളരെ മോശമാണെങ്കിലും ആളുകളുടെ ജീവിതോപാധിയായി നോക്കുമ്പോൾ അത് ചെറിയ രൂപത്തിൽ കൺസെൻ ചെയ്യാവുന്നതുമാണ്